ഹലോ സുസുക്കീ മോട്ടോസിൻറ്റെ ആളാണോ ഞങ്ങൾക്ക് ഒരു കാറ് ട്രൈ ചെയ്യാനായിട്ട് താൽപ്പര്യമുണ്ടായി ഞങ്ങൾ ഒരു എസ് യൂ വി മോഡല് കാറാണ് ഉദ്ദേശിക്കുന്നത് എർട്ടിഗേക്കെ അവൈലബിളാണോ

എർട്ടിഗേടെ സീറ്റിങ്ങക്കെ എങ്ങനെയാണ് വരണത് ആ സീറ്റിങ് സീറ്റർ ആ സെവൻ സീറ്ററാണ് ആ അപ്പോൾ ആ സീ യെ ജിയാണല്ലേ സീ യെൻ ജി അല്ലാത്ത മോഡലെറങ്ങണത് ഇറങ്ങുന്നുണ്ടോ ഇപ്പോൾ ഞങ്ങൾക്ക് ഇതിപ്പോൾ എന്നാണ് നേരിട്ടൊന്ന് കാണണമെങ്കിൽ എവിടുത്തെ ഷോ റൂമിപ്പോണം നിങ്ങളുടെ എവിടുത്തെ ഷോ റൂമായിരുന്നു ഓ നമ്മൾ ഇപ്പം ഇടുക്കിയിലാണ് താമസിക്കുന്നത് അത്കൊണ്ട് ഇടുക്കിയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കുള്ളൂ അപ്പോൾ ഇവിടെ അടുത്തൊരു ഷോ റൂമ്കളിൽ വണ്ടി കൊണ്ട് വരാൻ പറ്റുമെങ്കിൽ ഓ കോട്ടയത്ത് കോട്ടയത്ത് എവിടെയായിട്ടാണ് സ്ഥലം വരുന്നത് ഓ ഓ അപ്പോൾ നിങ്ങൾ കാറെന്തായാലും വന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ അറിയിക്കണം ഈ കാറിന്റെ മൈലേജ് കപ്പാസിറ്റിയൊക്കെ എങ്ങനാണ് വരുന്നത്

ഓ ഇപ്പം സുസൂക്കീടിപ്പം പെട്രോള് വണ്ടികൾ മാത്രമല്ലേ ഇറങ്ങുന്നുള്ളു ഓ അപ്പം ഈ വണ്ടിക്ക് ഈ വണ്ടിക്ക് വേറെ സെല്ലിങ്ങക്കെ പോകണുണ്ടോ ആൾക്കാർ വാങ്ങുമെന്നൊക്കെ ഉണ്ടോ നിങ്ങളുടെ ഒരു പേഴ്സണൽ ഒപ് പേഴ്സണൽ ഒപ്പീനിയനെങ്ങനെയാണ് ഈ വണ്ടിയെ പറ്റിയുള്ള ഓ ആ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫാമിലി ഫാമിലി വണ്ടിയായിട്ട് മാത്രമല്ല ഒരു ഫ്രണ്ട്സ്സ് സർക്കിളാണെങ്കിലും അത്യാവശ്യം പവറക്കെ ഉള്ളൊരു വണ്ടിയാണ് ഉദ്ദേശിക്കണത് ആ ഒരു രീതിയിൽ നോക്കുമ്പം നല്ലൊരു വണ്ടിയായിരിക്കുമോ ഓ അങ്ങനെയാണ് അപ്പോൾ ഓക്കേ പിന്നെ വേറേ മോഡൽസ്സൊന്നുമിപ്പം തൽക്കാലം ഇറങ്ങണില്ലാല്ലേ നിങ്ങളുടെ ഈ ബ്രിസ പുതിയ സിസ് പുതിയ സിഫ്റ്റക്കിപ്പോൾ നിലവിലിറങ്ങി തുടങ്ങിയോ ഓക്കെ അബ്ബാ ഓ അപ്പം ഇത് ആ ഒന്ന് ലേയ്റ്റസ്റ്റായിട്ടുള്ള മോഡലെറങ്ങുമ്പോൾ ഞങ്ങളെ ഒന്നറിയിക്കണേ അപ്പം ഞങ്ങളുടെ നമ്പറ് സേവ് ചെയ്ത് വെച്ചോളൂ ആ ഓക്കെ ഓക്കെ